ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് ബിസിനസ് പരമായിട്ട് പല രീതിയിലുള്ള ആൾക്കാര് മുന്നിട്ടിറങ്ങുന്നുണ്ട് നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ പ്രകൃതിയിൽ നിന്ന് തന്നെ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ എടുക്കുന്ന പലരീതിയിലുള്ള ബിസിനസും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഈ മരമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഉദാഹരണമാണ് നമ്മൾ മരം അത് നമ്മൾ വീട്ടില് ഉണ്ടാക്കുന്ന പല രീതിയിലുള്ള ചെയർ ഇപ്പോൾ കട്ടിൽ അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മരം കൊണ്ടാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഒരു ബിസിനസ് പരമായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്ന ഒന്നാണ് ഈ മരം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പല രീതിയിലുള്ള വിഭവങ്ങൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാപ്പി കുരുമുളക് റബർ ഇതൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന തന്നെയുള്ള ഒരു വിഭവാണ് അത് വെച്ച് പല രീതിയിലുള്ള ബിസിനസ്സു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ റബ്ബറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചുനിൽക്കുന്ന ഒന്നാണ് റബ്ബറെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ടയർ കാര്യങ്ങളൊക്കെ റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ബിസിനസ് കാര്യമാണ്